ജോലിക്ക് പുറത്തുള്ള ഹോബികൾ എന്ന് പറയുക വായന വളരെ ഇഷ്ടാമാണ് കവിതകൾ കേൾക്കാം പാട്ടുകൾ കേൾക്കാം പ്രത്യേകിച്ചും പഴയ മലയാളം പാട്ടുകൾ യേശുദാസ് എസ് ജാനകി കൂടെ പഴയ പഴയ പഴയ നൊസ്റ്റാൾജിയ് ഉള്ള പാട്ടുകള് കേൾക്കുക ആ വായന ഇഷ്ടമാണ് അതൊക്കെ ഇഷ്ടമാണ് ആ പിന്നെ കുറച്ച് കൃഷിയോട് താല്പര്യം ഉണ്ട് അങ്ങനെ പൂക്കള് അങ്ങനെ ചെടികൾ വളർത്താം അങ്ങനെ കുറേ താല്പര്യങ്ങൾ പിന്നെ കുറേ നേരം നമ്മൾ നമ്മളുടേതായ ലോകത്തേക്കൊന്ന് സഞ്ചരിക്കുക ഒറ്റയ്കിരിക്കുക വേറെ ശല്യങ്ങൾ ഒന്നുമില്ലാതെ അതും താല്പര്യമുള്ള കാര്യമാണ് കൂടുതലായിട്ടും വായന ഇഷ്ടപ്പെടുന്നുണ്ട് പാട്ടുകൾ കവിതകളൊക്ക ഭയങ്കര ഇഷ്ടവുമാണ്